ആ ഇത് എനിക്ക് ഒരു ഏജൻസിയിൽ നിന്ന് തന്ന ഗൈഡിൻ്റെ നമ്പർ തന്നതാണേ അപ്പോൾ ഞാൻ ഇവിടുന്ന് അല്ലായിരുന്നു എനിക്കൊരു എനിക്ക് ഉണ്ടല്ലോ ഈ റബറിൻ്റെ ഒക്കെ കൃഷി നടക്കുന്നതും അതുപോലെ അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കാണാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പം എന്നെ അങ്ങോട്ടേക്ക് ഒന്ന് കൊണ്ടുപോവുമോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്നു പറഞ്ഞുതരുവോ ചെയ്യാമോ ആ അതും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കിനും ഏജൻസിയിൽ നിന്ന് എനിക്ക് തന്ന നമ്പർ ആണ് ഇത് അപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ എവിടേക്കാണ് ഇത് ഈ റബ്ബറിൻ്റെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ വരുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റണം ഞാനിപ്പം ഇപ്പോൾ ഞാൻ നാട്ടിലില്ല അതുകൊണ്ടാണ് എനിക്ക് മെയിൻ ആയിട്ടും അറിയുന്നത് ഞാൻ നാട്ടിൽ ഇപ്പോൾ ഇല്ല പ്രോപ്പർ സ്ഥലം ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പം ഇവിടെ ഇല്ല എനിക്ക് റബ്ബർ ഉള്ള സ്ഥലങ്ങളാണ് എനിക്ക് റബ്ബർ ഉള്ള സ്ഥലങ്ങൾ അറിയുവാണ് വേണ്ടത് അപ് പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഞാൻ കേ ആ തിരുവല്ല ചെങ്ങന്നൂർ ഒക്കെ അവിടെയൊക്കെ ഉണ്ടോ ഞാൻ കേട്ടിട്ടുള്ളത് കൂടുതലും കാഞ്ഞിരപ്പള്ളി തിരുവല്ല എന്നൊക്കെയാണ്

ചേച്ചിക്ക് ഇപ്പോൾ ഇതിന് എനിക്ക് കാണിച്ചു തരാനായിട്ട് സൗകര്യമുള്ളതോ അല്ലെങ്കിൽ കുറച്ചുംകൂടെ നല്ലതായിട്ട് കാ പറ്റുന്നത് ഏതാണ് എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതലും പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോഴത്തേക്കിനും അതിന് പറ്റുന്ന ഒരു ഇതാണ് എനിക്ക് വേണ്ടത് കുറച്ചും കൂടെ ആൾക്കാർ പറഞ്ഞുതരുന്നതും എനിക്ക് ആ റബ്ബറിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും അതിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് കൂടുതലും കൊണ്ട് കാണിക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണ് ആ ശരി ആ ഓക്കെ ആ അതെപോലെ ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം പഠിക്കാനാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു ദിവസം കൊണ്ട് തീരത്തില്ല എനിക്ക് കുറച്ച് ദിവസം നിൽക്കണം അപ്പോൾ അതിനുള്ള സ്റ്റേയോ കാര്യങ്ങളോ അത് എനിക്ക് വേണ്ടി ശരിയാക്കാൻ പറ്റുമോ ഡോക്യുമെൻറ് ചെയ്യ് ഓക്കെ ആ അപ്പോഴത്തേക്കിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ എനിക്ക് പറ്റുമല്ലോ ഞാൻ വരുമ്പോഴത്തേക്കിനും ഞാൻ അതിനുമുമ്പ് വിളിക്കാം വരുന്നതിൻ്റെ തലേദിവസം വല്ലതും വിളിക്കാം അപ്പോൾ എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ വരണം അതുപോലെ ഇവിടെ കാണിച്ചുതരുവേം വേണം എൻ്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒന്ന് റെഡി ആക്കുവേം വേണം

ഞാൻ കൺഫേം ആയിട്ടില്ല എനിക്ക് ഇവിടെ നിന്ന് ഒന്ന് കോളേജിൽ നിന്ന് വിടുമ്പോഴത്തേക്കിനും ആ ഡേറ്റ് വെച്ച് ഞാൻ കൺഫേം ആക്കി പറയാം എന്തായാലും നേരത്തെ പറയാം ആ ഓ ശരി താങ്ക് യു